വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ ഫുഡ് ആയിരുന്നു ഓർഡർ ചെയ്തത് പക്ഷെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടേണ്ട ടൈമിൻ്റെ അഞ്ചു മിനിട്ട് മുമ്പ് തന്നെ നമ്മൾക്ക് ഫുഡ് കയ്യിൽ കിട്ടി വളരെ മാന്യമായ പെരുമാറ്റം കൊണ്ടുത്തന്ന ഡെലിവറി ബോയ് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരാൾ സന്തോഷത്തോടെ ഭക്ഷണം നമ്മുടെ നേരെ നീട്ടുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കുമല്ലോ നമ്മൾ വാങ്ങുന്നതാണങ്കിലും വിളമ്പുന്നയാൾ സന്തോഷത്തോടെ തരണം എന്നല്ലേ അപ്പോൾ ആള് കൊണ്ടുത്തന്ന ആള് വളരെ നിറ പുഞ്ചിരിയോടെയാണ് നമുക്ക് തന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണത്